എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് എൻ്റെ പത്താം ക്ലാസ് റിസൾട്ട് പരീക്ഷ എന്നിവ ആണ് രണ്ടാമത്തത് പിന്നെ അതുപോലെതന്നെ പ്ലസ്ടുവിൻ്റെ പരീക്ഷാഫലം വരുന്ന ദിവസം പിന്നെ എക്സാമിൻ്റെ ആ സമയം ഒക്കെ അന്ന് എനിക്ക് ഒരു ഏറ്റവും വെല്ലുവിളികളായ നിമിഷങ്ങൾ ആയിരുന്നു ഇതൊക്കെ പിന്നെ ടെൻഷൻ ഒക്കെക്കൊണ്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ സമയങ്ങളിൽ എത്ര എ പ്ലസ് കിട്ടും മാർക്ക് ഉണ്ടാകുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു ജയിക്കും ഒരു എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടി ഞാൻ അന്ന് ആ പരീക്ഷയൊക്കെ എഴുതി പിന്നെ അത് അന്ന് അത്ര കാര്യം ആക്കിയില്ല പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ സെൽഫ് മോട്ടിവേഷൻ ചെയ്യും അതുകൊണ്ട് പിന്നെ സ്വന്തം ഇപ്പോൾ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ ഞാൻ റിലാക്സ് ആകും അങ്ങനെ ഒക്കെ ആണ് ഞാൻ ഇതൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ ഇത്രവരെ എത്തിയിരിക്കുന്നത്